വീട്ടുമുറ്റത്തും പൂന്തോട്ടത്തിലുമെല്ലാം പക്ഷികളെയും കിളികളെയും ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിലൊന്നാണ് നമ്മൾ പാത്രങ്ങളിൾ വെള്ളം വെച്ച് കൊടുക്കുകാന്ന് പറയുന്നത് ഞങ്ങൾ പണ്ട് തറവാട്ടിലായിരുന്നപ്പോൾ അവിടെ ഒരു പാത്രത്തിൽ ധാന്യങ്ങൾ വെച്ച് കൊടുക്കാറുണ്ട് വെള്ളോം വെച്ച് കൊടുക്കാറുണ്ട് അപ്പം അവർ ഒരു വൈകുന്നേരം അഞ്ച് മണി ആറ് മണി സമയമാകുമ്പോൾ ഒരു കൂട്ടമായി കുരുവികളെല്ലാം വന്ന് അവിടെ നിന്ന് വെള്ളം കുടിക്കുകയും അതിൽ കുളിക്കുക കുളിക്യേം ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് അവർ കൂട്ടമായിട്ടാണ് എപ്പോഴും വരാറ് പിന്നെ കാക്കകൾക്കും മറ്റു കിളികൾക്കുമെല്ലാം ഞങ്ങൾ ചോറ് കൊടുക്കാറുണ്ട് അവർക്ക് അത് വിതെറി കൊടുക്കുമ്പോൾ അവരത് കഴിച്ച് എടുത്തുകൊണ്ട് പോകാറുണ്ട് അങ്ങനെ കിളികളെയും പക്ഷികളെയും എല്ലാം നിരീക്ഷിക്കാൻ ആഗ്രഹം ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ഒരു ജോയ് ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കും